അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ മുൻകരുതലുകൾ എന്ന് പറഞ്ഞ് ആദ്യമായിക്കൊണ്ട് തന്നെ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മളും അതുപോലെ ഇനി മറ്റ് ആരുടെയെങ്കിലും കൂടെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ

അതുപോലെ ലൈസൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പിന്നൊന്ന് നമ്മ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് സുരക്ഷാ മുൻകരുതലുകൾ എന്ന് പറയുന്നത് വാഹനം എപ്പോഴും ഫുൾ കണ്ടീഷനിലാണ്

അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള ഇന്ധനം നമ്മൾ എന്ത് കാണേണ്ടതുണ്ട് അത്ര നമുക്ക് വേണ്ടത് നമുക്ക് യാത്ര ചെയേണ്ട ദൂരം പോകുവാനുള്ള ഇന്ധനം ഇനി കാര്യക്ഷമമായ ഇന്ധനമില്ലെങ്കിൽ അപ്പോൾ നമ്മൾ യാത്രാ മധ്യേ ആ ഒരു ഇന്ധനം നിറയ്ക്കുവാനുള്ള സൗകര്യം കാണണം അതുപോലെ തന്നെ ഓയിൽ എൻജിൻ ഓയിൽ മറ്റ് അനുബന്ധ കാര്യങ്ങളെല്ലാം ക്ലിയറാണ് എന്ന് നാം ഉറപ്പുവരുത്തണം പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എല്ലാ ബ്രേക്ക് സിസ്റ്റം അതുപോലെ ഹോൺ സിസ്റ്റം ലൈറ്റ് തുടങ്ങിയുള്ള വാഹനുമായി ബന്ധപ്പെട്ട വാഹനം ഫുൾ കണ്ടീഷനിലായിരിക്കണം ഒരു യാത്രയ്ക്കുള്ള ഫുൾ കണ്ടീഷനിലായിക്കൊണ്ട് നമ്മൾ യാത്ര തുടങ്ങണം